ഇപ്പോൾ എനിക്കറിയാവുന്ന അതായത് നമ്മുടെ നാട്ടിൽ കൂടുതലായിട്ടും മാർക്കിസ്റ്റുകാരാണ് കൂടുതലായിട്ടും ഭരിക്കുന്നത് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഉള്ള അജണ്ടയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ മതേതരത്വം ആണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യ എന്ന് പറഞ്ഞത് ഒരു ഹിന്ദു രാഷ്ട്രമാണ് അപ്പം അതിൽ നിന്ന് നല്ല രീതിയിലുള്ള വ്യത്യാസം അതായത് എല്ലാ മതക്കാർക്കും നമ്മുടെ ഇന്ത്യയിൽ താമസിക്കാനുള്ള ഒരു അവകാശം അതാണ് അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ ഇന്ത്യയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ നമ്മുടെ കേരളത്തിൽ മാത്രമാണ് എല്ലാ മതക്കാർക്കും ജീവിക്കാനുള്ള ഒരു സ്വതന്ത്രമായിട്ടുള്ള ഒരു സ്വാതന്ത്രവും കാര്യങ്ങളൊക്കെ ഉള്ളു ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തും ചെയ്യാനുള്ള അവകാശം അതാണുള്ളത് പക്ഷെ ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ബീഫ് കഴിക്കാൻ പറ്റില്ല അപ്പോൾ അതിനുള്ള നിരോധനം നമ്മളൊരു ഭക്ഷണം കഴിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു അവകാശമാണ് അപ്പം അത് നിയന്ത്രിക്കുന്നത് എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സ്വാതന്ത്രമില്ലായ്മ തന്നെയാണ് പറയുന്നത് ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് കേ കേരളം കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി ഒരു സ്ഥലങ്ങളിലും ബീഫ് കാര്യങ്ങളൊന്നും കഴിക്കാൻ നമുക്ക് പറ്റുന്നതല്ല ആ അപ്പോൾ അതൊരു പൗരൻ എന്ന നിലയിൽ അതെനിക്ക് എന്താ പറയുക എനിക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ഒന്നാണ് എന്ന് വേണേ എനിക്ക് പറയാൻ പറ്റും നമ്മുടെ കേരളത്തിലാണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരു അജണ്ടയെ ഉള്ളു അതായത് മതേതരത്വം അവർക്ക് എല്ലാവർക്കും എല്ലാ മതക്കാർക്കും നല്ല രീതിയിലുള്ള ജീവിക്കാൻ വേണ്ടിയുള്ള സൗകര്യമാണ് നമ്മളുടെ കേരളത്തിലുള്ളത്